എടുത്തു അല്ലേ ഹലൊ അ നിങ്ങൾ അവിടെ നിന്ന് പിന്നെ വിത്ത് നെല്ലിന്റെ വിത്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടല്ലോ ആ അപ്പം ഞങ്ങൾ ഇവിടെ പ്രകൃതിരമണീയമായ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ നെല്ല് കുത്തിയിട്ട് ഐനാത്തൂന്ന് ഇച്ചിരി അരി കുറച്ച് എടുത്ത് ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പം അത് അത് ഒരു കല്യാണം ഒരു കല്യാണമുണ്ട് അപ്പം ആ കല്യാണത്തിന് ആവശ്യമായ അരി നിങ്ങൾക്ക് താരാൻ പറ്റുമോ അപ്പം അത് തരികയും അപ്പം അതിന്റെ വിലയൊക്കെ എങ്ങനെയാണ് ആ അപ്പം കുറച്ച് തരത്തില്ലെ അ അപ്പോൾ ആ അപ്പം ഇത്രയും അപ്പം ഒരു കല്യാണത്തിനുള്ള ഇതൊക്കെ വേ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വില കുറച്ച് ഒരു കിലോ എന്നാ വച്ച് കുറച്ച് തരും ആ കുറച്ച് തരൂ അപ്പോൾ അതാവുമ്പം ഞങ്ങൾക്കും കൂടെ ഒരു നല്ല ഒരു ഇതായിരുന്നു കുറച്ച് കിട്ടുമായിരുന്നു എങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ആവശ്യമായി കഴിഞ്ഞപ്പം കുറച്ച് കിട്ടുമ്പം അ പിന്നേ അതിന്റെ നെല്ല് പച്ച നെല്ല് കുത്തിയതിന്റെ അരി കാണുമോ പച്ച നെല്ല് കുത്തിയാൽ അരി പൊടിയ്ക്കാനോ കുത്തിക്കണം അ കുത്തിച്ചാൽ നിങ്ങൾ അ അപ്പം നമുക്ക് അതിനുള്ള അപ്പത്തിനൊക്കെ കാര്യത്തിനായിട്ട് ആണെങ്കിലും എടുക്കാമല്ലോ എ ആ അടുത്ത മാസം പത്താം തീയതിയിലേക്ക് അ എത്രേ കിലോ എന്ന് വച്ചാൽ ഒരു ഒരു അമ്പത് കിലോ അമ്പത് കിലോ ആ ഓക്കെ അത് അ അതുപോലെ പച്ച നെല്ലിന്റെ

അ അ ഇരുപത്തി അഞ്ച് കിലോ വല്ലതും മതി അത്

അത് പൊടിച്ച് വറത്തുമൊക്കെ തരത്തില്ലേ അല്ല നിങ്ങൾ തരത്തില്ലെ

ആ എന്നാൽ ശരി അതൊന്ന് അറിയാനാണ് അപ്പോൾ ഓക്കെ അല്ലെ അടുത്ത മാസം അ ശരി എന്നാൽ